ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റായിട്ടുള്ള ഒരു എജ്യുക്കേഷൻ സിസ്റ്റമാണ് നമുക്ക് ഇന്ത്യയിലുള്ളത് തന്നെ നമ്മൾ നേരത്തെ നേരത്തെ നേരത്തത്തെ ജനറേഷൻ വച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ നല്ല രീതിയിലുള്ള ഒരു എജ്യുക്കേഷൻ സിസ്റ്റമായിട്ട് വന്നിട്ടുണ്ട് പണ്ടു കാലങ്ങളിലെ ഗവൺമെന്റ് സ്ക്കൂളും കാര്യങ്ങളൊക്കെയെന്നു പറയുന്നതും അത്രയായിട്ടുള്ള ഡെവലപ്പ്ഡ് ഒന്നും അല്ലായിരുന്നു പിള്ളേർക്ക് അതിനായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ റേഞ്ച് വരുമ്പോൾ ടൈമിൽ കുട്ടികളും ഒക്കെ നല്ലൊരു എജ്യുക്കേഷൻ സിസ്റ്റമാണ് നമ്മുടെ ഗവൺമെന്റും കാര്യങ്ങളുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയറും ലൈക്ക് ഗവൺമെന്റ് സ്ക്കൂളുകളൊക്കെ ലൈക്ക് സി ബി എസ് സി സ്ക്കൂളിലതുപോലെ തന്നെയൊരു ഡിഗ്രിയിലെത്തി ചേർന്നിട്ടുണ്ട് അവരുടെ ഒരു ആ സ്ക്കൂൾ സ്ട്രക്ചർ ആണെങ്കിലും അതുപോലെ എജ്യുക്കേഷനൽ പാറ്റേൺ ആണെങ്കിലും സ്മാർട്ട് ക്ലാസുകളും കാര്യങ്ങളുമൊക്കെ പിള്ളേരുടെ എജ്യുക്കേഷനൽ സിസ്റ്റത്തിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്